ഹലോ ആ ഞാനേ വണ്ടിത്തൊരത്ത്ന്നാണ് വിളിക്കുന്നത് ഞാനേ ഗ്യാസെ എനിക്ക് നിങ്ങള് കൃത്യമായിട്ട് സമയത്തെന്നും കൊണ്ടുവരാത്ത സ്ഥിതിക്ക് ഞാന് ഇനി ഈ ഗ്യാസ് കണഷന് റദ്ദാക്കാന് പോവുകയാണ് എന്നുവച്ചാല് നമ്മള് ഇള്ള സമയത്ത് നിങ്ങള് ഗ്യാസ് കൊണ്ട് വരൂല്ലാ അല്ലെങ്കില് വിളിച്ചിട്ട് ഗ്യാസ് വീട്ടിലെത്തിക്കൂല്ലാ വീട്ടിലെത്തിയാല് പറയും ഓട്ടിപ്പി നമ്പര് ചോദിക്കും അത്ന്ന് ചിലപ്പോള് ആ സമയത്ത് നമ്മളെ ഫോണില് കിട്ടാറില്ല അങ്ങനെയെക്കെ പ്രശ്നങ്ങള് ഉള്ള കാരണം ഞാന് ഞാനത് ക്യാന്സലെയ്യാണ് ഞാന് വേറെ ഭാ ഭാരത് ഗ്യാസിലേക്ക് ഞാന് മാറാന് വേണ്ടി നില്ക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗ്യാസിന്റെ കണക്ഷന് എനിക്കിപ്പോള് വേണ്ട തല്ക്കാലം എനിക്കിത് ക്യാന്സലെയ്ത് തന്നാല് മതി പിന്നെ നിങ്ങളുടെ കൊണ്ടുവരുന്ന ആളുകളേ അത്ര അത് റെഫറന്സ് നമ്പര് നമുക്ക് ആ എന്റെ റെഫറന്സ് നമ്പര് മുപ്പ മൂന്ന് മൂന്ന് നാല് നാലാണ് അപ്പോള് ആ അത് അത് നിങ്ങള് നോട്ടെയ്യാ എന്നുവച്ചാല് ഈ ഗ്യാസ് എനിക്കെത്രയും പെട്ടെന്ന് ക്യാന്സലെയ്ത് തരണം എനിക്ക് വേറെ കണഷന് എടുക്കാനാണ് ഓക്കെ